പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ബസ്സ് ഓട്ടോ അതുപോലെ തന്നെ റെയിൽവേ എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് റെയിൽവേ അതുപോലെ തന്നെ ബസ്സാണ് ഓട്ടോ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് റേറ്റ് കാര്യങ്ങൾ അതിൻ്റെ നിരക്കുകളൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർ പോലും ബസ്സിനെ ആശ്രയിക്കേണ്ട ഒരു ഇതിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് റെയിൽവേയും ദൂരെ യാത്രകളിലാണ് പ്രധാനമായിട്ടും മലപ്പുറത്ത് നിന്ന് പാലക്കാട്ടേയ്ക്ക് പോകുകയും തിരിച്ച് അങ്ങോട്ട് പൊകുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും റെയിൽവേ ആണ് ഉപയോഗിക്കാറുള്ളത് ഒരുപാട് ദൂരം ചെല്ലുന്ന ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാറുള്ളത് റയിൽവേ ആണ് ബസ്സ് ദൂരെ യാത്രകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് പ്രധാനമായിട്ടും അതിന് ഉപയോഗിക്കാറുള്ളത് കെ എസ് ആർ ടീ സി ബസ്സുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകളും ഒരുപാട് പേര് ദൂരയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഒറ്റപ്പാലത്തു നിന്ന് കോഴിക്കോട് വരെ ഉള്ള ബസ്സുകൾക്കും അതുപോലെ മലപ്പുറം ജില്ലയിലുള്ള ബസ്സുക ബസ്സുകളൊക്കെ ഒരുപാട് നമ്മുടെ പാലക്കാട് ഭാഗത്ത് നിന്നും ഓടുന്നുണ്ട് പാലക്കാട് നിന്നും മലപ്പുറം അതുപോലെ തന്നെ എറണാകുളം വരെ ഒരുപാട് ബസ്സുകളുണ്ട്